ഫോട്ടോഗ്രാഫി ഞാൻ ഔപചാരികമായി പഠിച്ചിട്ടില്ല ഫോട്ടോഗ്രാഫിയില് ഒത്തിരി കാര്യങ്ങള് പഠിക്കാനുടെന്ന് പറയുമെങ്കിലും അത് നമ്മള് കാലക്രമേണ ആണ് പഠിക്കുന്നത് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല പക്ഷെ പഠിക്കാൻ പറ്റും കാരണം ഒത്തിരിയേറെ കാര്യങ്ങള് ഫോട്ടോഗ്രാഫിയില് ഉൾപ്പെടുന്നുണ്ട് ഫോട്ടോഗ്രാഫി ഒരു ഫോട്ടോഗ്രാഫറുടെ ജീവിതത്തില് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഒരു ഒരു സംഭവം കണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ അല്ലെങ്കിലൊരു മറ്റൊരാളിലേക്ക് എത്തിച്ച് എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യല്ല അപ്പം ഔപചാരികമായി പഠിച്ചിട്ടില്ലെങ്കിൽ കൂടെ ചെറിയ ചെറിയ ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളെത്രത്തോളം ഡെഡികേറ്റഡാണ് ഈ ഒരു കാര്യം ചെയ്യാനെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന പല ഇൻസിഡൻറ്റുകളും ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഫോട്ടോഗ്രാഫി യിലേക്ക് എത്താനായിട്ട് ഒരു പ്രത്യേക നയ്പുണ്യം തന്നെ വേണം കാരണം ഒരു സംഭവത്തെ കണ്ടിട്ട് അത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിനെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഫോട്ടോഗ്രാഫി പഠിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ബേസിക്സ് അറിയാതെ ഫോട്ടോഗ്രഫിയിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന അത്ര നല്ല അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഫോട്ടോഗ്രാഫി പഠിച്ച് പഠിച്ച് വരുമ്പോൾ അത് കാ കാലം കൂടുതൽ എടുക്കുമെന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം ആഴം കൂടുതലായി ഇറങ്ങുമ്പോൾ ആള ആഴം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കടൽ തന്നെയാണ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്ന മഹാസാഗരത്തിലെ ക്ക് ഇറങ്ങുക എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഫോട്ടോഗ്രാഫി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിട്യൂട്ടുകൾ നമുക്കിന്ന് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും എൻ്റെ പ്രേരണ ഒരു ഫോട്ടോഗ്രാഫർ തന്നെയാണ് വിനായകൻ വിനായകനെന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് എൻ്റെ പ്രേരണ അദ്ദേഹം വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഒരു ഒരു സംഗതി കണ്ടാൽ അതിൻ്റെ മാറ്റ് എങ്ങനെ കാം ക്യാമറയിൽ പതർത്താം പകർത്താം എന്നത് അദ്ദേഹത്തിന് വളരെ നന്നായിട്ടറിയാം അദ്ദേഹം കൊടുക്കുന്ന ആഒരു വ്യൂ എന്നുവച്ചുകഴിഞ്ഞാൽ ഇപ്പം ഒരു ഒബ്ജക്റ്റിനെ കണ്ട് കഴിഞ്ഞാല് അത് എങ്ങനെ മനോഹരമായിട്ട് പകർത്താമെന്ന് ചിന്തിക്കുന്നൊരു രീതി വളരെ മനോഹരമാണ്

അത്തരം കാര്യങ്ങളിലൊക്കെ പ്രാകൽ പ്രാഗൽഭ്യം കാണിച്ച കുറെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്